ഓക്കേ അപ്പോൾ ചുമതലകളെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും രണ്ട് പേർക്കായാലും എന്താണ് പറയുക ഒരു പോലെയാണ് ഉത്തരവാദിത്വങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇപ്പം പണ്ടത്തെക്കാലത്ത് പറയുന്ന പറയുമ്പോൾ അതായത് പുരുഷന്മാർ ജോലിക്ക് പോവും സ്ത്രീകൾ വീട് വീട്ടുകാര്യങ്ങൾ വീടിൻ്റെ അതായത് കു കുട്ടികൾ അച്ഛനമ്മ വീട്ടുജോലി ആ ഒരു കാര്യങ്ങളാണ് സ് എന്താണ് പറയുക നോ നോക്കി നടത്തേണ്ടത് പുരുഷന്മാർ ജോലി ചെയ്ത് അധ്വാനിച്ച് പൈസ കൊണ്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് വരും ഈയൊരു രീതിയായിരുന്നു പക്ഷേ ഒ ബാക്കി ഒരു കാര്യങ്ങളിലും പുരുഷന്മാർ കൂടുതൽ ഇടപെടാറില്ല അവ് ആ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് പോലും അവർ അവർക്ക് അറിയേണ്ട ആവശ്യങ്ങളില്ല അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ പണ്ടത്തെ കാലത്തെന്ന് പറയുമ്പോൾ ഉ സ്ത്രീകൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല പുരുഷന്മാർ എന്ത് പറയുന്നൊ അത് കേട്ട് അത് ചെയ്ത് ജീവിക്കണം അങ്ങനെയൊരു രീതിയായിരുന്നു പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആകെ മാറി ഇപ്പോൾ എജ്യുക്കേഷൻ കൂടി അപ്പോൾ സ്ത്രീക്കും പുരുഷനും ജോലിയായി അപ്പോൾ രണ്ടാളും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാൾക്കും ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ് അതായത് ഇപ്പം സ്ത്രീകൾ ചെയ്യുന്ന ജോലിയായാലും ശരി അത് പുരുഷന്മാരും ചെയ്യാറുണ്ട് പുരുഷന്മാർ ചെയ്യുന്ന ജോലി സ്ത്രീകളും ചെയ്യാറുണ്ട് ആ ഒരു കാലത്തിലേക്കാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളായാലും ശരി ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു വീട്ട് ജോലി കുട്ടികൾ ഇതൊക്കെ അവർ എന്ന് പറയുക അവരുടെ കടമകളാണ് അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ പക്ഷേ പുരുഷന്മാർക്ക് എന്താണ് പറയുക അവർ സമ്പാദിച്ചാൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ തീർന്നു എന്നാണ് അവർ മുമ്പ് അവർക്ക് ഒരു ധാരണ ഉണ്ടായത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും രണ്ടാൾക്കും ഉത്തരവാദിത്വമുണ്ട് വീട്ട് കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും രണ്ടാളും ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടായിരിക്കും ഷെയർ ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അപ്പോൾ പരസ്പരം മനസ്സിലാക്കാനും പറ്റും വേറെ പിന്നെ ഒരുപാട് എന്താണ് പറയുക അപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ ചെയ്യേണ്ട കടമകൾ ഏതെല്ലാമാണെന്ന് അവർക്ക് ഒരു ബോധം ഒണ്ടാവും അതിനെ കുറിച്ചിട്ട് അപ്പോൾ ഉത്തരവാദിത്വം കൂടുമ്പോഴേക്ക് അവർ കൂടുതൽ പൈസ കാര്യങ്ങളൊന്നും ചിലവാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഒന്നും ചെയ്യാണ്ടിങ്ങനെ നടക്കുന്നത് ഉത്തരവാദിത്വം ഒന്നുമില്ലാണ്ട് വീട്ട് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നടക്കുന്ന ഒരു ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം വരും അപ്പോൾ ഭാര്യ കുടുംബം മക്കൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നു കല്യാണം കഴിഞ്ഞപാടെ തന്നെ അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ നമുക്കറിയാം നമ്മളെ ചുറ്റുവട്ടത്തുതന്നെ എല്ലാവരും എജ്യുക്കേറ്റഡ് ആണ് എല്ലാവരും ജോലിക്ക് പോവുന്നവരാണ് ഭാര്യ ആയാലും ഭർത്താവായാലും രണ്ടാൾക്കും ജോലിയുണ്ട് അപ്പോൾ അവരെ മക്കൾക്കും അതെ നല്ല എജ്യുക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ പോകുമ്പോളേക്ക് വീട്ടിൽ പ്രശ്നങ്ങളും വരാറില്ല പിന്നെ അതേപോലെ സമ്പാദ്യം സമ്പ രണ്ടാളും സമ്പ ജോലിക്ക് പോകുമ്പോളേക്ക് അവിടെ സമ്പാദ്യ ശീലം കൂടുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ പരസ്പരമുള്ള ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴേക്ക് സാധാരണയായിട്ട് ഇപ്പം രാവിലെ ഒരു വീട്ടിൽ ചോറും കറികളും വീട്ടുകാര്യങ്ങൾ വാഷ് തുണി വാഷ് ചെയ്യാൻ എല്ലാം ഉണ്ടാവും അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും സ്ത്രീക്ക് പിന്നെ അവരെ കുട്ടികളെ റെഡി ആക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കിയിട്ട് അവരെ സ്കൂളിലേക്കയച്ചിട്ട് പിന്നെ ടിഫിനും കാര്യങ്ങൾ അവരെ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടതൊക്കെ റെഡി ആക്കിയിട്ടായിരിക്കും പോവേണ്ടത് അപ്പം ഈ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ ആടെ ഭാര്യയും ഭർത്താവും രണ്ടാളും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഭാര്യയും ഭർത്താവും കൂടി കിച്ചൻ കാര്യങ്ങളിലൊക്കെ വന്ന് ഇടപെടും സഹായിക്കും അങ്ങനെ ചെയ്യുമ്പോളേക്ക് എന്താണ് പറയുക കൂട് ജോലി പെട്ടെന്ന് പെട്ടെന്നാവും അപ്പോൾ കറക്റ്റ് ഒരു ഒമ്പത് ഒമ്പതരയാവുമ്പോൾ നമുക്ക് ഓഫീസിലേക്ക് എത്താനും ആ ഒരു ടൈംമിങിന് ഇങ്ങനെ രണ്ടാളും എന്താണ് പറയുക മ്യൂച്ച്വൽ ആയിട്ട് ഒര് അണ്ടർസ്റ്റാൻ്റിങ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതാണ് ഇപ്പം അതൊരു സ്നേഹമാണ് അപ്പം ആ സ്നേഹവും പരിചരണവും കടമയും ഒക്കെ എന്താണ് പറയുക നമ്മുടെ ആ കുട്ടികളും കണ്ട് പഠിക്കുന്നതാണ് അപ്പം അവരും അവരും അവരുടെ സ്വഭാവത്തിലും ഈ മാറ്റങ്ങളെല്ലാം വരും അപ്പോൾ ഫ്യൂച്ചറിൽ അവർക്കും ഒരു കുടുംബം ആവുമ്പോളേക്ക് അവരും ഇതേപോലെ മാറാൻ ശ്രമിക്കും അപ്പോൾ നല്ല എന്താണ് പറയുക പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് ഇന്നത്തെ ജനറേഷനിൽ സംഭവിക്കുന്നുള്ളത് ഇന്നെന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളും കൂടി ജോലി ചെയ്യണം അതുപോലെ തന്നെ ജോലി ചെയ്തിട്ട് അ സ്വ സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നുമുണ്ട് അവരുടെ കടമകൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആൾ ചോ ആൾക്കാർക്ക് ഒരു ബോധമുണ്ട് എന്താണ് പറയുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ട് പോവേണ്ടത് എല്ലാ കാര്യങ്ങളും അറിയാം പണ്ടൊക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ പേടിച്ചായിരിക്കും ഇല്ലെങ്കിൽ വീട്ടുകാരൊക്കെ അവർ എന്ത് പണി ജോലി പറഞ്ഞാലും അത് ചെയ്തു കൊടുത്തിട്ട് പിന്നെ അവർക്കൊരു ഇഷ്ടം താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അതും പോലും തുറന്ന് പറയാൻ പേടിയുള്ള ആൾക്കാരായിരിക്കും പണ്ടത്തെ ആൾക്കാർ അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളെ ഒന്നും പറയാണ്ട് ഭാര്യ അവരുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് വീട്ട് അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾ ജീവിതം കളഞ്ഞവരാണ് പക്ഷെ ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല ഫുൾ ജോളി ആണ് എന്ത് ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രശ്നങ്ങളായാലും അതൊക്കെ പറഞ്ഞ് തീർത്ത് നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം എങ്ങനെയാണ് ഒരു കുടുംബത്തെ എങ്ങനെയാണ് നോക്കേണ്ടത് പിന്നെ ഒരു പുരുഷനായാലും ഒരു കുടുംബത്തിലെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അതായത് കുടുംബത്തിൽ കുടുംബത്തിനെ നോക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പുരുഷനും അറിയാം സ്ത്രീക്കും അറിയാം അപ്പോൾ ഇവിടെ എന്താണ് പറയുക കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഫാമിലികളുണ്ട് പക്ഷേ കുറവാണ് കൂടുതൽ എജ്യുക്കേറ്റഡ് ആയത് കൊണ്ട് ആ ഒരു രീതിയിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നവരുമുണ്ട് രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ജോലിക്ക് പോയിട്ട് ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാത്ത ആൾക്കാരുമുണ്ട് പക്ഷേ ജൊ ഇപ്പോൾ പുരുഷൻമാരെ അപേക്ഷിച്ച് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇപ്പം സ്ത്രീകളും ജോലിക്ക് പോകുന്നത് കൊണ്ട് സമ്പാദ്യ ശീലം കൂടി പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളും ഒന്നും പുരുഷന്മാർ തന്നെ ഏൽക്കേണ്ട ഒരു ഒരവസ്ഥ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരുന്നില്ല അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് അതാണ് കുടുംബത്തിൽ സ്ത്രീയും പുരുഷൻ്റെ കടമയും ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോളത്തെ ആൾക്കാർക്ക് അറിയാം അതിനനുസരിച്ചിട്ട് അവർ പെരുമാറുന്നുണ്ട്